ഞങ്ങൾക്ക് വാർത്താമാധ്യമങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ വലിയ തരക്കേടില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുകയാണ് പിന്നെ ചില വാർത്താമാധ്യമങ്ങൾ നുണ പറയുന്നുണ്ട് ചില വാർത്താമാധ്യമങ്ങൾ സത്യസന്ധമായിട്ട് പറയുന്നുണ്ട് ചില വാർത്താമാധ്യമങ്ങൾ ഈ പരസ്യങ്ങൾ മാത്രം എടുക്കാനും അതിനും പരസ്യങ്ങൾക്കുവേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ചില വാർത്താമാധ്യമങ്ങളുണ്ട് അങ്ങനെയൊക്കെയാണ് വാർത്താമാധ്യമങ്ങളെപ്പറ്റി പറയാൻ പിന്നെ ബിസിനസ്സിൻ്റെ പരസ്യം പിടിക്കാനും മറ്റുള്ള കാര്യങ്ങളെല്ലാം ചില പത്രങ്ങളിൽ വാർത്താമാധ്യമങ്ങൾ വേണ്ടി അതിനുവേണ്ടി കുറേ അവർ ശ്രമിക്കുന്നുണ്ട് അതിനുവേണ്ടി അവർ കവറേജെടുക്കാൻ വേണ്ടി അങ്ങനെയിഷ്ടംപോലെ ഓരോ ഇതൊക്കെ ചെയ്യുന്നുണ്ട് അതെങ്ങനെയാണ് എന്തെന്നുള്ളതിനെപ്പറ്റിയുള്ളതൊക്കെ നമ്മളിങ്ങനെ നോക്കി നോക്കി വരുന്നതേയുള്ളു അന്നേരം അത് ശ്രദ്ധാപൂർവ്വം ഞങ്ങൾ നോക്കുന്നുണ്ടെല്ലാ കാര്യങ്ങളും അത് ശ്രദ്ധാപൂർവ്വം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അത് വേണ്ടതിനുവേണ്ട നടപടികളൊക്കെ എന്താണെന്നു വെച്ചാൽ നമുക്ക് അതിനൊരു കംപ്ലെയിൻ്റായിട്ട് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ കൊടുക്കും ഇല്ലെങ്കിൽ അത് കേട്ടുകൊണ്ടിരിക്കും നമ്മൾ മറ്റുള്ള ഓരോ കാര്യങ്ങളും ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ ഈ പറയുന്ന കണക്ക് ബിസിനസ്സിന്നകത്ത് അതൊരു ബിസിനസ്സായിട്ടുതന്നെ അവർ കാണുന്നത് ബിസിനെസ്സ് സാമ്പത്തിക വാർത്തകൾ ഇങ്ങനെ വാർത്താ റിപ്പോർട്ടുകളും ഒക്കെ ആയിട്ടുള്ള പൊതുവിഷയങ്ങളിൽ അവർ നല്ലതാണ് പക്ഷേ എങ്കിലും ഇവർ ബിസിനെസ്സ് അവരുടെ വളർത്താനുള്ള ഒരു ഇതാണ് കാണിക്കുന്നത് അതിന് ഒരു ഇതുണ്ട് അത് അവരുടേതായ കാര്യങ്ങൾ അവരുടേയോരോ പ്രശ്നം പിന്നെയതുപോലെ നമ്മൾ ഈ ടി വികളൊക്കെ വച്ചു കഴിഞ്ഞാൽ അതും വാർത്തേൻ്റെ ഒരു ഭാഗമാണല്ലോ ടി വി വെച്ചു കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റുപോലും ഒരു വാർത്തകാണാൻ പറ്റില്ല പരസ്യങ്ങൾ മാത്രമേ ഉള്ളു പരസ്യം പതിനഞ്ചു മിനിറ്റും അഞ്ചു മിനിറ്റ് വാർത്തയും അങ്ങനെയാണ് അത് അതൊരു വലിയൊരു ഇതായിട്ടുള്ളൊരു ഒരു ഇതായിട്ട് വരുന്നുണ്ട് അത് അത് ഒന്ന് നമ്മൾ അവരെയും ഈ ടീ വി ചാനലുകാർ അത് ശ്രദ്ധയിൽപ്പെടുത്തിക്കുക പെടേണ്ടതാണ് പെടുത്തിക്കണം പെട്ടാലെ നമ്മൾക്കതൊരു കാണാനൊരിതുള്ളു ഇപ്പം നമ്മളിപ്പം എന്തു ചെയ്യുന്നു ഒരു ചാനല് വെച്ച് പരസ്യമാണെങ്കിൽ അടുത്ത ചാനലിലേക്ക് നമ്മൾ മാറും അടുത്ത ചാനലിലേക്ക് പോയിട്ട് അവിടെ വരുമ്പോൾ അവിടുത്തെ കുറച്ച് നേരം കഴിയുമ്പോൾ അടുത്ത് തിരിച്ചിങ്ങോട്ട് വരും ഇത് നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വന്നാൽ ഒരു വാർത്ത നമുക്ക് പൂർണ്ണമായിട്ടൊന്ന് കേൾക്കാനോ അല്ലെങ്കിൽ കാണാനോ പറ്റുന്നില്ല എന്നാലും നമ്മൾക്ക് ഒരിത് പകുതി വാർത്ത പറഞ്ഞു കഴിഞ്ഞയുടനെ ഇടവേളയെന്നും പറഞ്ഞവർ വരുന്നു പറയുന്നു അങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ പ്രോബ്ലങ്ങളുണ്ട് ഈ വാർത്താ മാധ്യമത്തിൽക്കൂടി അങ്ങനെ അപ്പോൾ പ്രത്യേകിച്ച് ഇനിമേ പറയാൻ പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടേതായ ഈ പ്രാദേശികമായിട്ടുള്ളൊരു കാര്യങ്ങൾ അവർ മുൻകൂട്ടി കാണിക്കുന്നുണ്ട് അതിൻ്റെ പ്രാദേശികമായുള്ളോരു ഇതൊക്കെയാണ് അപ്പോൾ നമ്മളെ രാഷ്ട്രീയത്തിനെക്കാളും ജനം വിശ്വസിക്കുന്നതും വാർത്തകളിലൂടെ ഈ അവരാണോ ഓരോ എടുത്തുകൊണ്ട് വരുന്നത് വാർത്തകളൊക്കെ പൊക്കിയെടുത്ത് വന്ന് അത് അതിനുവേണ്ട നടപടികൾ ഉണ്ടാക്കിയേൽപ്പിക്കുന്നതും ഈ വാർത്താ മാധ്യമങ്ങൾ തന്നെയാണ് അത് അതിനകത്തവര് നമ്മൾക്കത് അവരെ മാറ്റിനിർത്താൻ പറ്റില്ല ഈ നാല് തൂണിലൊരു തൂണാണ് നമ്മുടെ അതു പറയുന്നു അന്നേരം അതെല്ലാം കുഴപ്പമില്ല ആ രീതിയ്ക്ക് തന്നെയങ്ങു പോകുന്നു അന്നേരം അതിൻ്റേതായ വിഷയങ്ങളും അങ്ങനെയുള്ള ചില പലപല തെളിയാത്ത കേസുകൾ പോലും ഈ വാർത്താമാധ്യമങ്ങളാണ് പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് അത് നമ്മുടെ പൊതുജനത്തിൻ്റെ മുന്നിലെത്തിക്കുന്നത് അങ്ങനെ ഈ വർത്തകള് കൊണ്ട് വന്ന് നമ്മക്കിഷ്ടംപോലെ ഓരോ നേട്ടവും നമുക്കുണ്ടായിട്ടുണ്ട് ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്കുവേണ്ടി അല്ലാതെ നമ്മുടെ ഈ ഭരണകർത്താക്കളെക്കൊണ്ടൊന്നും അല്ല അല്ലെങ്കിൽ ഭരിക്കുന്നവരെക്കൊണ്ടോ മറ്റുള്ളതൊന്നുംകൊണ്ടല്ല നമുക്ക് കിട്ടുക നമുക്ക് കൂടുതലും കിട്ടിക്കൊണ്ടരിക്കുന്ന ഓരോ കാര്യങ്ങളുടേയും ഇതു കൊണ്ടുവരുന്നത് വാർത്താക്കാരാണ് അവർ കൊണ്ടുവരുന്നതുകൊണ്ട് നമുക്കതിന് ഇഷ്ടംപോലെ കാര്യങ്ങളൊക്ക സാധിക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ കുഴപ്പം ഇല്ലാത്തയിതാണ് ഇത് ഇങ്ങനെ ഇതൊരു വാർത്താ മാധ്യമങ്ങളെപ്പറ്റി പറയുമ്പോൾ അങ്ങനെ പിന്നെയിത് ഇവർ ഇവരുടെ സ്റ്റാഫുകൾ മറ്റുള്ള എല്ലാവർക്കും വേണ്ടി നമ്മൾ അത് ശമ്പളം കൊടുക്കുന്നതും അവരുടെ ചിലവ് എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ വെച്ചു വരുമ്പോൾ അവർക്ക് വാർത്തയില്ല പിന്നെ പരസ്യമില്ലെങ്കിൽ അവർക്ക് പിടിച്ചുനിൽക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്ക നമുക്കത് പിന്നെ ആൾക്കാർക്ക് അറിയേണ്ടതാണ് അത് അങ്ങനെ പോവുമ്പോൾ എന്തെങ്കിലും നമ്മൾക്കൊരു അതിൻ്റെ ഇത് കിട്ടുന്നുണ്ട് അത് നമ്മൾക്കതിന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടത് അവർക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ അവർക്ക് ഈ ശമ്പളമെല്ലാം കൊടുത്ത് നിർത്തണമെണ്ടുങ്കിൽ അത് ഇതുപോലെയൊക്കെത്തന്നെ വേണം വാർത്തകൾ പരസ്യമെടുത്താലേ അവർക്ക് നിലനിൽപ്പുള്ളു ഇൻകേസ് മറ്റുള്ള സ്റ്റാഫിന് ശമ്പളം മറ്റുള്ള എല്ലാംകൂടെ പറയുമ്പോളങ്ങനെ വരും അത് അത് നമ്മൾ തെറ്റു പറയുന്നില്ല പക്ഷെ എങ്കിലും അതിച്ചിരി കുറച്ച് അത് നമ്മൾക്ക് പൊതുജനങ്ങൾക്ക് കൂടുതൽ വാർത്ത പറയാൻ ടൈം കൊടുക്കുക അല്ലാതെ അഞ്ച് മിനിറ്റ് വാർത്തയും പതിനഞ്ച് മിനിറ്റ് പരസ്യവും അത് തെറ്റാണെന്നുള്ളതാണ് എൻ്റെ ഈ വാർത്തായിതിൽ പറയാനുള്ളത് പിന്നെ അങ്ങനെയൊരു എനിക്കൊരു പരാതിയേ ഉള്ളു അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല